ഞാൻ കഴിഞ്ഞ ഇടെ മൊബൈൽ ഫോൺ കയ്യിലുള്ളത് മാറ്റി പുതിയൊരു ഫോൺ നമ്പറെടുത്തു പക്ഷേ അത് ഇലക്ട്രിസിറ്റി ബോഡിൽ അപ്ഡേറ്റ് ചെയ്യാൻ ഞാൻ മറന്നുപോയി കാരണം അപ്ഡേറ്റ് ചെയ്താലേ ഇലക്ട്രിസിറ്റി ബോർഡുമായിട്ടു ബന്ധപ്പെട്ട കാര്യങ്ങളും അതൊക്കെ എൻ്റെ ഫോൺ നമ്പറിൽ അറിയാനും ഇപ്പം അങ്ങനെയൊക്കെ സാധിക്കത്തുള്ളൂ ഇപ്പം കറൻറ്റുമായിട്ടു ബന്ധപ്പെട്ട എന്തെങ്കിലും കാര്യങ്ങളുണ്ടെങ്കിൽ അതൊക്കെ അറിയണമെങ്കിൽ ഞാൻ ഫോൺ നമ്പർ അപ്ഡേറ്റ് ചെയ്തേ മതിയാകുകയുള്ളൂ അതുകൊണ്ട് എൻ്റെ ഫോൺ നമ്പർ അപ്ഡേറ്റ് ചെയ്യാനായിട്ടൊരു ഇൻഫോർമേഷൻ തരാനായിട്ടാണ് വന്നേ അപ്പോൾ എൻ്റെ പുതിയ ഫോൺ നമ്പർ തൊണ്ണൂറ്റി മൂന്ന് അൻപത്തിനാല് പതിനാറ് ഇരുപത്തെട്ട് മുപ്പത് ഈയൊരു ഫോൺ നമ്പറാണ് എൻ്റെ പുതിയ ഫോൺ നമ്പർ ഈ ഫോൺ നമ്പറിൽ എന്തെങ്കിലും എന്തെങ്കിലും ഇൻഫൊർമേഷനുകൾ കറൻറ്റിൻ്റെ കാര്യങ്ങൾ ഇലക്ട്രിസിറ്റിയുടെ പേയ്മെൻറ്റുമായിട്ടു ബന്ധപ്പെട്ട കാര്യങ്ങൾ എന്തെങ്കിലും ഉണ്ടെങ്കിൽ ഈ ഫോൺ നമ്പറിലേക്ക് അയക്കിയാൽ ഈ നമ്പറിൽ അയച്ചാൽ എനിക്ക് എൻ്റെ ഫോണിൽ കാണാൻ സാധിക്കുകയും അതിന് അതിനനുസരിച്ച് എനിക്ക് മുൻപോട്ടുള്ള കാര്യങ്ങൾ എടുക്കാനും സാധിക്കത്തുള്ളൂ അപ്പോൾ ഞാനിപ്പോൾ എടുത്തത് എയർടെല്ലിൻറ്റെയാണ് ഈയൊരു ഫോൺ നമ്പർ ഇപ്പം എന്തെങ്കിലും ഇൻഫർമേഷൻ എന്തെങ്കിലും ഇങ്ങോട്ടു തരാനാണെങ്കിൽ ഈ ഫോൺ നമ്പറിലോട്ടയക്കുക താങ്കളോടു പറഞ്ഞല്ലോ കഴിഞ്ഞ കഴിഞ്ഞ ദിവസം ആണ് ഞാൻ ഫോൺ നമ്പർ മാറിയത് അപ്പോൾ എനിക്ക് അപ്ഡേറ്റ് ചെയ്യാൻ മറന്നുപോയതാണ് മറന്നുപോയത് പിന്നെയും ഞാൻ അപ്ഡേറ്റ് ചെയ്യാൻ മറന്നതാണ് അതാണ് ഇതു കൊണ്ടു ഞാനിപ്പോൾ കൊണ്ടു വന്നു പറയുന്നത് ഈ ഫോൺ നമ്പറിലേക്ക് എന്തെങ്കിലും സെറ്റ് ചെയ്ത പേയ്മെൻറ്റോ ഇപ്പോൾ ഞാനെന്തെങ്കിലും പൈസ അടക്കാൻ വിട്ടു പോയതോ എന്തെങ്കിലും കാര്യങ്ങളോ അല്ലെങ്കിൽ അങ്ങനത്തെ എന്തെങ്കിലും കാര്യങ്ങളോ ഉണ്ടെങ്കിൽ ഈയൊരു ഫോൺ നമ്പറിലേക്കു പറഞ്ഞാൽ മതി ഈ ഫോൺ നമ്പർ ആണെൻ്റെ ഇപ്പോഴത്തെ ഞാൻ ഒരിക്കലും മാറ്റാൻ പോകുന്നില്ല എന്തെങ്കിലും കാര്യങ്ങൾ ഉണ്ടെങ്കിൽ ഇതിനകത്ത് എന്തെങ്കിലും കാര്യങ്ങൾ പറയാനുണ്ടെങ്കിൽ ഇതിനകത്തു വിളിച്ചാലും മതി ഈ ഫോൺ നമ്പർ എൻ്റെ തന്നെയാണ് ഞാൻ തന്നെ സംസാരിക്കുകയുള്ളൂ അപ്പം എന്തെങ്കിലും പേയ്മെൻറ്റ് ഇഷ്യൂസുമായിട്ട് ബന്ധപ്പെട്ട എന്തെങ്കിലും കാര്യങ്ങളുണ്ടെങ്കിൽ ഈ ഫോൺ നമ്പറുമായിട്ട് ബന്ധപ്പെടുക ഞാനനുസരിച്ച് മുൻപോട്ടുള്ള കാര്യങ്ങൾ പിന്നെ ചെയ്യുന്നതായിരിക്കും